ഹലോ ഞാനൊരു ഫോണെടുത്തു ഈ ഇടയ്ക്ക് ബിഗ് മില്ല്യൻ ഡേസല്ലായിരുന്നോ അപ്പോൾ ഫ്ലിപ്പിന്നാണ് ഞാൻ ഫോണെടുത്തത് ഒരു ത്രീ ഫോർ ഡേസിനുള്ളിൽ സാധനം കിട്ടി എൻ്റെ ഫ്രണ്ടിൻറടുത്ത് ഈ ഫോൺ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു കുറെ നാളായിട്ട് ഈ ഫോൺ യൂസ് ചെയ്യുന്നു അവൻ എന്നെ പറ്റിയൊരു ഫോൺ നല്ല ഇതായതുകൊണ്ട് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ആ ഫോൺ മേടിച്ചോ നല്ലതാണെന്ന് പറഞ്ഞു ഞാൻ ഒരു ഫോൺ മേടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു ഇപ്പം ഈ ഇടയ്ക്ക് ബിഗ് മില്ല്യൻ ഡേസിൻ്റെ സമയത്ത് ഞാൻ ഒരു ഫോണെടുത്തായിരുന്നു അവൻ പറഞ്ഞതായിട്ട് ആ സെയിം ഫോൺ തന്നെയായിരുന്നു എടുത്തത് ഫോൺ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ചാർജ്ജ് കയറും അതിൻ്റെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇതായിരുന്നു ക്യാമറയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഫോട്ടോയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലിയറും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ അതിൻ്റെ സൗണ്ട് നല്ല ഡിസ്പ്ലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ അതിൻറകത്തായിരുന്നു പാട്ട് കേൾക്കുന്നത് വണ്ടിയിലൊക്കെ പോകുമ്പോൾ ബ്ലൂ ടൂത്ത് കണക്ട് ചെയ്ത് അതിൻ്റെ ഇത് വെച്ചിട്ടായിരുന്നു പാട്ട് കേട്ടുകൊണ്ടിരുന്നത് ഫോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിരുന്നു അതിൻ്റെ എല്ലാ ഇതും അതിൻ്റെ ആക്സസറീസ് എല്ലാം പെർഫക്ടായിരുന്നു അതിൻ്റെ ക്യാമറ അങ്ങനെയുള്ള കാര്യങ്ങളൾ ബാറ്ററി പിന്നെ അതിൻ്റെ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ അതിൻ്റെയുള്ള ഓരോ ആപ്പ് ഒക്കെ എടുത്തു നോക്കുന്നു അങ്ങനെയുള്ള പല വിധത്തിലുള്ള പിന്നെ ഫോൺ എന്ന് പറയുമ്പോൾ നല്ലതായിരുന്നു